കോഴിക്കോട് ജില്ലയിലെ കാലാവസ്ഥ എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ ഒര് ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലം മഞ്ഞുകാലം അതുപോലെ തണു മഞ്ഞുകാലം എന്നത് തന്നെ തണുപ്പ്ക്കാലം പിന്നെ വേനൽ കാലം എന്നിങ്ങനെയുള്ള കാലം ഋതുക്കളാണല്ലോ ഉള്ളത് എന്നാൽ ഇന്ന് കാലാവസ്ഥയിലേക്ക് ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് പിന്നെ വേനൽ കാലത്ത് അതിഭീകരമായ ചൂടാണ് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരുന്നു പൊതുവേ ചൂടനുഭവിക്കുന്നത് അപ്പോൾ ഒരു ആദ്യമൊക്കെ ഒരു മിതമായ ചൂടായിരുന്നു ഉള്ളത് എന്നാൽ ഇന്ന് ഗൾഫ് കൺട്രികളിലുള്ള ചൂടിനേക്കാൾ പത്തിരട്ടി ചൂടാണിന്ന് നാട്ടിൽ അല്ലെങ്കിൽ കോഴിക്കോടിൽ തന്നെ ഇപ്പോൾ പൊതുവേ കോഴിക്കോട് ജില്ല താഴ്ന്ന സ്ഥലം താഴ്ന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കടല കടൽ പ്രത് കടലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചൂട് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ വയനാട് അ ഇല്ല എങ്കിൽ ഉള്ളിലോട്ട് കൂടുന്ന ജില്ലകളിനേക്കാളും കൂടുതൽ കൂടുതൽ ചൂട് എന്തായാലും ഈ കോഴിക്കോട് ജില്ലയിലായിരിക്കുവല്ല എങ്കിൽ പോലും ഇന്ന് പത്തിരട്ടി ചൂട് എന്ന് വേണം പറയാൻ പിന്നത്പോലെത്തന്നെ മഴക്കാലം മഴക്കാലം ജൂൺ മുതൽ ഒരു നവംബർ ആദ്യൊ ആദ്യം വരെയാണ് മഴക്കാലം എന്നാലിന്ന് മഴ പെയ്യുമ്പോൾ നല്ല ശക്തമായ ഒരു പ്രളയത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല നാശനഷ്ടങ്ങളും അത്പോലെ പല ഇപ്പോൾ കൃഷിയിലായിക്കോട്ടെ അല്ലെങ്കിൽ വീടുകളിലായിക്കോട്ടെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാക്കുന്നു പിന്നെ ചില സമയങ്ങളില് മഴക്കാലത്താണെങ്കില് മഴ തീരെ ഇല്ല വേനൽ കാലം പോലെയാണ് ചൂട് കൂടുതല് വെയില് ക്ഷീണം അതൊക്കെത്തന്നെ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ കാലം ഇപ്പോൾ ആദ്യം ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ഒരു സ്ഥിരമായ ഒരു കാലാവസ്ഥയാണ് എന്നാലിന്ന് ഒന്നെങ്കിൽ പ്രളയം അൽ മഴക്കാലത്തൊന്നെങ്കിൽ പ്രണയം പ്രളയം അല്ലെങ്കിൽ ചൂട് കൂടുതൽ എൻ ഇപ്പോൾ എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റെയ്യാൻ പറ്റില്ല ആ രീതിയിലാണ് ഋതുക്കളൊക്കെ പോയ്കൊണ്ടിരിക്കുന്നത് ഇപ്പം മഴക്കാലത്ത് തന്നെ തണുപ്പ് വരുന്നുണ്ട് തണുപ്പും മഴ മഴയുവാണ് പക്ഷെ ഇപ്പോൾ ചൂടാണ് കൂടുതല് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയാണ് പിന്നെ തണുപ്പ് കാലമെന്ന് പറയുന്നത് ഒരു നവംബർ ഒരു പകുതി തൊട്ട് ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തണുപ്പാണ് എന്നാൽ ഇന്ന് തണുത്ത വേനൽ കാലം ഏതാ മഴക്കാലമേതാ മഞ്ഞുകാലമേതാ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഋതുക്കളൊക്കെ മാറി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്